ഞാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിക്ക് പല തവണയായിട്ട് കവിതകളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഞാൻ കവിത രൂപത്തിൽ ആ വ്യക്തിക്ക് എഴുതി നൽകിയിട്ടുള്ളത് തീർച്ചയായും ഞാൻ എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ ആ വ്യക്തിക്ക് ആ എഴുത്തിലൂടെ കവിതയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ആ വ്യക്തിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തിരിച്ചും എനിക്ക് കവിതകളുടെ രൂപത്തിലും ഗദ്യ രൂപത്തിലും കത്തുകളുടെ രൂപത്തിൽ ആ വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുവാൻ തുറന്നു പറഞ്ഞു കൊണ്ടുള്ള കത്തുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടു തന്നെ ഇവിടെ ഗദ്യമോ കവിതയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും സമ്മാനമായിട്ട് എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ മറുപടി അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടതു മൂലം അവർ അതിന് മറുപടി കത്തെന്നോണം മറുപടിയെന്നോണം അവർ എനിക്ക് കത്തുകൾ എഴുതി അയച്ചിട്ടുണ്ട് അതും എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട്